എനിക്കേറ്റവും ഇഷ്ട്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് പോസ്റ്റീവ് പ്രോഡക്റ്റ് എന്നുള്ളത് സാരിയാണ് സാരി ഞാനൊരു ഓൺലൈൻ വഴി പർച്ചെയ്സ് ചെയ്തിരുന്നു അത് നല്ല ഗുഡ് ക്വാളിറ്റിയായിട്ടുള്ളൊരു സാരിയായിരുന്നു നല്ല നീളവും വീതിയും വിത്ത് ബ്ലൗസോടു കൂടി നല്ല രീതിയിലുള്ളൊരു സാരി നല്ല പ്രോഡക്റ്റ് നല്ല ഗുഡ് പ്രോഡക്റ്റായിരുന്നു പിന്നെ അത് ധരിക്കാനാണെങ്കിലും നല്ല രീതിയിൽ നല്ല സുഖമായിട്ട് നമുക്ക് വെയർ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല എളുപ്പമുള്ള ടൈപ്പിലുള്ള ഒരു സാരിയായിരുന്നു അതുപോലെത്തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള സാരിയാണ് അപ്പോൾ അതുവെച്ച് നോക്കുമ്പോൾ എല്ലാംകൊണ്ടും പ്രൈസാണെങ്കിലും നമുക്ക് അഫോഡബിൾ പ്രൈസിൽ കിട്ടി അപ്പോൾ നല്ല രീതിയിലുള്ള ഓൺലൈൻ പർച്ചേയ്സ് കിട്ടിയതുകൊണ്ട് ആ സാരി എനിക്ക് വളരെ ഗുണകരമായി നല്ല സാരിയാണ് നല്ല ഗുഡ് പ്രോഡക്റ്റാണ്